ഞങ്ങളുടെ സമുദായത്തിൽ നർത്തകരെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള സഹകരണവും കൂടുതലായിട്ടുള്ള പരിശീലനങ്ങളും നടത്താറുണ്ട് അപ്പോൾ കുടുംബശ്രീ വഴി തന്നെ നർത്തകർക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം നടത്തുന്നുണ്ട് പിന്നെ എങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം സ്കൂളുകളിൽ പല പരിപാടികളും നടത്തുന്നുണ്ട് പല പരിപാടികളും നടത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോത്സാഹനം എല്ലാ കാര്യങ്ങളും അവർ നടത്തുന്നുണ്ട് അതായത് ജില്ലാതല ക്യാംപെയിനുകൾ പിന്നെ പിന്നെ സംസ്ഥാനത്തെയും സംസ്ഥാനതല ക്യാംപെയിനുകളും അങ്ങനെ പല പരിപാടികളും അവർ നടത്തുന്നുണ്ട് നല്ല രീതിയിൽ സംരംഭങ്ങളുണ്ട് നമ്മളുടെ നാട്ടിൽത്തന്നെ അടിപൊളിയായിട്ട് ഇവരെ എന്താ പറയുക നൃത്തങ്ങൾ പഠിപ്പിച്ച് നല്ല രീതിയിൽ എത്തിച്ച് പല റിയാലിറ്റി ഷോകളിലും പങ്കെടുപ്പിച്ച് അവർക്ക് നല്ല നിലയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്